വിവാഹങ്ങളില് ആളുകള് വധുവിന് എന്ത് സമ്മാനമാണ് നല്കുന്നത് എന്ന് ചോദിച്ചാല് പ്രധാനമായിട്ടും നമ്മള് നല്കേണ്ടത് സ്നേഹസമ്മാനങ്ങളാണ് സ്നേഹത്തോടുകൂടെ പല വധുവിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മള് കൊടുക്കാറുണ്ട് ക്യാഷ് രൂപത്തിലോ അല്ലെങ്കില് സാധനങ്ങളുടെ രൂപത്തിലോ ഒക്കെ നല്കാറുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് സ്ത്രീധനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നില്ല സ്ത്രീ ധനം സ്ത്രീ തന്നെ ഒരു ധനമാണ് അതായത് അതുതന്നെ ഒരു വാല്യെബിളായിട്ടുള്ള ഒരു തിങ്ങാണ് അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ കാര്യം ഇന്നിവിടെ സ്ത്രീധനം ആരും കൊടുക്കാനിഷ്ടപ്പെടുന്നില്ല മറ്റുള്ള സമ്മാനങ്ങള് വധുവിന് സന്തോഷത്തോടു കൂടെ വധുവിന്റെ അച്ഛനോ അമ്മമാരോ അല്ലെങ്കില് കുടുംബങ്ങളോ അവരുടെ ഫ്രണ്ട്സ് തലങ്ങളിലുള്ളവരൊക്കെ കൊടുക്കാറുണ്ട് സ്ത്രീധനമായിട്ട് സ്ത്രീധനം എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള രീതിയില് കൊടുക്കുന്നതിനോട് താല്പര്യമില്ല അത് കൊടുക്കുന്നത് ശിക്ഷാര്ഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യന് നിയമ വ്യവസ്ഥയില് സ്ത്രീധനം എന്നുപറയുന്ന ഒരു ടേം വിവാഹ വേദിയിലുപയോഗിച്ചുകൊണ്ട് അത് കൊടുക്കുന്നതും അത് വാങ്ങുന്നതുമെല്ലാം ശിക്ഷയുള്ള കാര്യമാണ് അതാവശ്യപ്പെട്ടു കഴിഞ്ഞാല് നമുക്ക് ശിക്ഷയുണ്ട്